ഇന്ത്യയിലെ പഠനരീതി മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ദയനീയമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ കൂടുതലും ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളാണ് ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിലും വളരെ തുച്ഛമായ രീതിയിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ പഠിച്ചിറങ്ങുമ്പോൾത്തന്നെ ജോലി വരുന്ന രീതിയിലുള്ള പലതരം കോഴ്സുകൾ അവൈലബിൾ ആണ് എന്നാൽ ഇന്ത്യയിൽ അത് വളരെ ചുരുക്കമായിട്ടാണ് കണ്ടു വരുന്നത് അതുപോലെത്തന്നെ പറയാനാണെങ്കിൽ നമുക്ക് വരുന്ന അതിനു വരുന്ന സാലറി വന്നിട്ട് വളരെ കുറവാണ് മറ്റു രാജ്യങ്ങളിൽ അത്യാവശ്യം നമ്മൾ ആ ജോലിയ്ക്ക് അനുയോജ്യമായ സാലറി കൊടുക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ അതു ലഭ്യമാകുന്നില്ല നമുക്ക് വളരേയധികം തുച്ഛമായ രീതിയിലുള്ള ശമ്പളമാണ് കിട്ടി വരുന്നത് ആഹ് അതുപോലെത്തന്നെ നമ്മൾ ഡിജിറ്റൽ കാര്യത്തിലേയ്ക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതിയിൽ ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ കൂടുതലും ഡിജിറ്റലായിട്ട് അവർ ലാപ് വഴി അതേപോലെ കൂടുതലും അവർ ആ ഒരു ഡിജിറ്റലായിട്ട് കണക്ട് ചെയ്യുന്നു എന്നാൽ ഇന്ത്യയിൽ അതുമായി കണക്ട് ചെയ്യുന്നതിന് പകരം കൂടുതലും ആയി വരുന്നതാണ് ഉള്ളൂ വളരെ തുച്ഛമായ രീതിയിലാണിപ്പം ആയി വരുന്നത് അതുപോലെത്തന്നെ നമുക്ക് വിദ്യാഭ്യാസത്തിൽ നമുക്ക് പഠനരീതിയിലാണെങ്കിലും വളരെ എന്താ പറയുക ചുരുക്കമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടത്ര കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ വേണ്ട കാര്യങ്ങളേക്കാളും അതിനകത്ത് വേറെ മറ്റുള്ള കുറച്ച് ആക്ടിവിറ്റീസും കൂടെ നമുക്ക് വേണ്ടിയിട്ട് കരുതുന്നു പക്ഷെ ഇന്ത്യയിൽ അതില്ല